ആ ആണല്ലോ ആ അതുതന്നെ ഇതാര് ഫോൺ വിവോ ഉണ്ട് സാംസങ് ഉണ്ട് ആപ്പിളിൻ്റെ വേണോ ആപ്പിളിൻ്റെ ഏത് മുതൽ മോഡൽ ഫോർ ഫോർട്ടീൻ പ്രോ വല്ലതും നല്ലതുതന്നെ മാത്രോ നിങ്ങൾക്ക് ഏതാണ് ഇപ്പോൾ വേണ്ടത് അതിക്ക് വില കുറച്ച് കൂടുതൽ ഉണ്ടാവും ഫോർട്ടീൻ പ്രോയ്ക്ക് ഏകദേശം നയൻറ്റി തൗസൻഡിന്റെ മോളിൽ പോവും ആ ബോക്സ് ഈസ് ആ അതെല്ലാമുണ്ട് പേടിക്കേണ്ട അത് ഇ എം ഐ ഞാൻ കൊടുക്കലില്ല ആപ്പിളിന് ആപ്പിളിന് കൊടുക്കലില്ല അത് നോക്കാം നിങ്ങൾക്ക് അതുതന്നെ വേണമെന്ന് ഉറപ്പാണോ ഇ എം ഐയോ ഇ എം ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച അത്ര ഇ എം ഐ കിട്ടാറില്ല ചിലപ്പോൾ അതിൻ്റെ പകുതി ഫസ്റ്റ് ടൈം അടക്കേണ്ടി വരും ആ അതുതന്നെ ഉം അതുതന്നെ ആ അത് നോക്കേണ്ടി വരും അത് നോക്കിയിട്ടാണ് കൊടുക്കൽ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇ എം ഐ ചിലപ്പോൾ കുറച്ചുകിട്ടിയാൽ നിങ്ങൾക്ക് വാങ്ങാൻ വാങ്ങാൻ കഴിയുമോ ഫോൺ ഇ എം ഐ കുറച്ചു കിട്ടിയാൽ ആ ആ അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് എല്ലാം കൊണ്ടുവന്നോ എപ്പോൾ വരുന്നത് ഞങ്ങൾ ഫുൾ ടൈമുണ്ട് രാവിലെ ഒമ്പത് മണിയിൽ നിന്ന് രാത്രി പത്ത് മണി വരെ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ആക്കാം നാളെ നിങ്ങൾ ആധാർ കാർഡ് എല്ലാം എടുത്തുകൊണ്ടുവരൂ നമുക്ക് ഇ എം ഐ എത്ര കിട്ടുമെന്ന് നോക്കാം എന്നിട്ട് അതിൻ്റെ പിറ്റേദിവസം എത്രയാണ് ക്യാഷ് ഇതാണോ അത്രയും കൊണ്ടുവന്നിട്ട് വന്നാൽ മതി ഉം ഓക്കെ അപ്പോൾ ആ ഓക്കെ